ഉത്സവത്തിനായി ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നതിനായി കളിമണ്ണുകൾ ശേഖരിച്ച് വിഗ്രഹം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അത് നല്ലരീതിയിൽ കിട്ടാൻ എനിക്ക് ഉണ്ടാക്കാൻ അതിൽ സാധിച്ചില്ല കാരണം കളിമണ്ണില് വളരെ ഏറെ മണൽ അടങ്ങിയിരുന്നത് കൊണ്ട് എനിക്ക് ആ വിഗ്രഹം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല